അതേ സ്കൂളുകളിൽ ആണേലും പ്രദേശത്തുള്ള ലൈബ്രറികൾ ധാരാളമുണ്ട് സനാതന ലൈബ്രറി അഞ്ച് ലൈബ്രറി ഇതെല്ലാം പ്രദേശത്തുള്ള ആൾക്കാർ ആൾക്കാർക്ക് വായിക്കാനും എടുത്ത് വീടുകളിൽ കൊണ്ടുപോയി വായിക്കാനുള്ള സൗകര്യമൊക്കെ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് ആളുകൾ പ്രയോജനപ്പെടുത്താത്ത ആൾക്കാരുമുണ്ട് പ്രയോജനം പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരുമുണ്ട് ഇന്നത്തെ തലമുറയിൽ വായനാശീലം കുറഞ്ഞ് വരികയാണ് കൂടുതലും അവർ ഗൂഗിൾ സേർച്ച് ചെയ്യുകയും മറ്റുമാണ് ചെയ്യുന്നത് എങ്കിലും വായനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു തലമുറ ഇന്നുണ്ട് എന്ന് തന്നെ പറയാം അതിന് നമ്മുടെ പ്രദേശത്തുള്ള ലൈബ്രറികൾ രണ്ട് രണ്ട് എണ്ണമുണ്ട് അവിടെ എത്തപ്പെടുന്ന ആളുകൾ കൂടുതലും പുതുതലമുറയെന്ന് പറയാൻ പറ്റുകയില്ല പണ്ടുള്ള വായനക്കാർ തന്നെ അവരുടെ ഒരു സമയം അവരുടെ ഒരു ഏയ്ജ് കഴിഞ്ഞിട്ടും വന്ന് വായിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് ലൈബ്രറികൾ നമ്മൾ എപ്പോഴും അറിയാമല്ലോ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ വായനയുടെ വാതായനങ്ങൾ തുറന്നിടുന്ന ഇടമാണ് ലൈബ്രറി എന്ന് പറയുന്നത് അപ്പോൾ അത് ലൈബ്രറിയിൽ ചെന്നിരുന്നു വായിക്കുമ്പോൾ അതിന്റേത് ഒരു ശാന്തത നമുക്ക് അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ലൈബ്രറിയിൽ ചെന്നിരുന്ന് വായിക്കാനാണ് ഇപ്പോൾ കൂടുതലും വിരൽ തുമ്പത്ത് കിട്ടുന്ന ഗൂഗിൾ സേർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം വിരൽത്തുമ്പിൽ കിട്ടുന്ന നോവലുകളും കവിതകളും കഥകളും ഒക്കെയാണ് ഉള്ളത് എങ്കിലും ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ട് ലൈബ്രറിയിലെ ലൈബ്രറിയെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വായന വായന എന്ന് പറയുന്ന ഒരു നമുക്ക് അറിയാം പരത്തി വായനയും അഗാധമായി വായിക്കുന്ന വായനയും വെറുതെ വായിച്ചു പോകുന്ന വായനയും എല്ലാം ഉണ്ട് വായനയ്ക്ക് ഒരു റിഥം താളം ഇതെല്ലാമുണ്ട് വായന അതിൻറ്റേതായിട്ടുള്ള രീതിയിൽ വായിക്കുമ്പോൾ മാത്രമേ ആസ്വാദകരുടെ മനസ്സിലേക്ക് കടന്ന് ചെല്ലാൻ ആസ്വാദകരുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിക്കാൻ പറ്റുകയുള്ളു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടു തന്നെയെന്നെ ലൈബ്രറികളെ ആശ്രയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ പുസ്തകങ്ങളെടുത്ത് വായിക്കുക ഒരു മകന് തുല്യമാണ് വായന എന്ന് പറയുന്ന പറഞ്ഞ് അതായത് നമുക്ക് എല്ലാം അതിൽ നിന്ന് കിട്ടുന്നു അപ്പം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ വായനകൾ എന്ന് നമുക്ക് അത് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരം ലൈബ്രറികളാണ് ലൈബ്രറിയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ശാന്തതയും ഏകാന്തതയും പുസ്തകങ്ങൾ അടുക്കി വെക്കുമ്പോൾ കിട്ടുന്ന ആ അടിക്കിയിരിക്കുന്നത് കാണുമ്പോഴുള്ള നമ്മളുടെ ആ ഒരു കൗതുകവും എല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും നമുക്ക് വായിച്ച് അനുഭവം ഇപ്പം നമുക്ക് മൊബൈലിലൂടെ നോക്കുന്ന ഒരു വായന അല്ല നമുക്ക് പുസ്തകങ്ങളുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ കിട്ടുന്നത് ഒരു ഗൃഹാതുരത്വം തന്നെയാണ് അതിലെ ആ ഗൃഹാതുരത്വം എന്ന് പറയുമ്പം നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലേക്ക് പുസ്തക പുഴുവായി നമ്മൾ വായിച്ച് ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് ലൈബ്രറിയെ ആശ്രയിക്കുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമ്മുടെ രാ നാട്ടിലെ ലൈബ്രറികൾ ധാരാളമുണ്ട് അതിനെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്